ആ സാർ വരൂ ഇരിക്കൂ ആ ആ പറ അതെ അതെ നമ്മൾ ആ നമ്മൾക്ക് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു മൂന്ന് പ്രോപ്പർട്ടി ഉണ്ട് മൂന്നും അത്യാവശ്യം വലിയ കുഴപ്പം ഇല്ലാത്ത പ്രോപ്പർട്ടിയാണ് പക്ഷെ റേറ്റ് വന്നിട്ട് ഒരു ഒരു ഒരു പ്രോപ്പർട്ടി വന്നിട്ട് കുറച്ച് മെയിൻ റോഡിൽ നിന്ന് ഉള്ളിലാണ് അത് ഒരു അമ്പത്തി അഞ്ചിന് ഒക്കും പക്ഷെ ഏട്ടൻ മെയിൻ റോഡിനോട് അടുത്തു വേണം പറഞ്ഞതുകൊണ്ട് പിന്ന രണ്ടെണ്ണം മെയിൻ റോഡിനടുത്തുണ്ട് പക്ഷെ അതിനു കുറച്ച് റേറ്റ് ഒരു എഴുപത് വരുന്നുണ്ട് സ്ഥലം ഒരു ഒരു പത്ത് സെന്റ് സ്ഥലവും അതിൽ ഒരു നല്ലൊരു വീട് ഒരു രണ്ടുനില ഒന്ന് രണ്ടുനില വീടാണ് അതിന് ഒരു എൺപത്തിരണ്ടോളം വരുന്നുണ്ട് പിന്നെ ഒന്ന് ഒരു ഒരു നല്ല സിംഗിൾ സ്റ്റോറേജ് വീട് ആണ് അതിന് ഒരു എഴുപതാണ് അവർ പറയുന്നത് നമുക്കൊരു ഒരു അറുപത്തഞ്ചിനൊക്കെ നോക്കാൻ പറ്റും

ആ അല്ല ടൗൺ അല്ല ആ ഈ അതെയല്ലെ മറ്റെ അമ്പതിൻ്റെ ആ അമ്പതിൻ്റെ വീടെന്നു പറയുമ്പോൾ കുറച്ച് അത് അതു മെയിൻ റോഡിൽ നിന്ന് ഒരു രണ്ട് കിലോ മീറ്റർ ഓ ആ രണ്ടു രണ്ടര കിലോമീറ്ററോളം ഉളിലേക്ക് പോകുന്നുണ്ട് ഇല്ല ഒരു കാർ ഒക്കെ പോവും കാർ പോവാനുള്ള റോഡൊക്കെ ഉണ്ട് പിന്നെ എല്ലാ ആശുപത്രിയെന്നു പറയുമ്പോൾ കുറച്ച് നിങ്ങൾ ടൗണിലേക്ക് വന്നിട്ട് വേണം ആശുപത്രി നമ്മുടെ കുറച്ച് അപ്പുറത്ത് ആ ഒരു ജംഗ്ഷൻ കഴിഞ്ഞിട്ട് അങ്ങോട്ടു താഴത്തേക്ക് പോവണ ആ ഒരു വഴിയിൽ ആണ് നമുക്ക് സാറിന് വേണമെങ്കിൽ നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം ആ വീട് വന്നിട്ട് ആ ഒരു മൂന്ന് ബെഡ് റൂം ഉണ്ട് ഒറ്റ നിലവീട് ആണ് അടുക്കള മെയിൻ റൂം ആ ലിവിംഗ് റൂം ഒരു മൂന്ന് ബെഡ് റൂം ഒരു സിറ്റ് ഔട്ട് പിന്നെ രണ്ട് ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്ത് വരുന്നുണ്ട് ഒരു ബെഡ്റൂമിന് ബാത്ത് ഇല്ല പിന്നെ പുറത്ത് ഒരു ബാത്ത് റൂം ഉണ്ട് ആ രീതിക്ക് ആണ് അത്യാവശ്യം നല്ല വീട് ആണ് കുഴപ്പം ഒന്നും ഇല്ല അതു കെട്ടിയിട്ട് ആ അതു വന്നിട്ട് ഒരു അഞ്ച് സെന്റ് സ്ഥലത്തിൽ ആണ് അതു നിൽക്കുന്നത്

ഓ അങ്ങനെ ഏട്ടാ പക്ഷെ അത് ആ കുറച്ച് റേറ്റ് കുറച്ച് ആവും ഒരു വൺ സി ആറിന്റെ അടുത്ത് വരികയാണെങ്കിൽ നമുക്ക് അത് അങ്ങനെ ഒരു സ്ഥലം ഉണ്ട് പക്ഷെ അതിന് ഒരു ആ വൺ പോയിന്റ് വണ്ണോളം പറയുന്നുണ്ട് അവർ അല്ല അവർ അവർ എന്താണെന്നു വച്ചു കഴിഞ്ഞാൽ അവിടെനിന്ന് സ്ഥലം വിറ്റിട്ട് അവരുടെ മക്കളൊക്കെ അമേരിക്കയിലാണ് അപ്പോൾ അവർ അങ്ങോട്ട് പോവാൻ വേണ്ടിയിട്ട് ആണ് അപ്പോൾ അവർക്ക് റെഡി ക്യാഷ് ഫുൾ എമൗണ്ട് വേണമെന്ന് ഒരു എന്താണ് ഞാൻ ഒന്നുകൂടി വേണമെങ്കിൽ സംസാരിച്ച് നോക്കം അത് സ്ഥലം ഉണ്ട് അത്യാവശ്യം ഒരു മുപ്പത്തിരണ്ട് സെന്റ് സ്ഥലവും ഒരു രണ്ട് സെന്റ് വീടും ആണ് ആ നല്ല വീട് ആണ് ആ ആ നമ്മൾക്ക് ആ അതും വേണമെങ്കിൽ ഒന്നു പോയി നോക്കിയിട്ട് വരാം സാറിന് ഇപ്പോൾ ഫ്രീ ആണെങ്കിൽ നമുക്ക് പോയി നോക്കിയിട്ട് വരാം അല്ല അതു നല്ല ഏരിയ ആണ് നമുക്ക് റോഡിൽനിന്ന് വലിയ ദൂരം ഒന്നും ഇല്ല അടുത്തുതന്നെ ആണ് നല്ല റോഡ് ഉണ്ട് കാറും അത്യാവശ്യം വലിയ വണ്ടികൾ ഒക്കെ ബസ്സ് റോഡ് ആണ് ബസ്സ് റൂട്ട് ആണ് അതെ പിന്നെ നമുക്ക് കുറച്ചും ഇങ്ങോട്ട് വന്നാൽ അവിടെത്തന്നെ ബസ് സ്റ്റോപ്പ് എങ്ങനെയാ ഏട്ടാ ആ നല്ല ആൾക്കാരാണ് താമസിക്കുന്നവർ ഒക്കെ നല്ല ആൾക്കാരാണ് കുഴപ്പം ഇല്ല പിന്നെ വീട് പറഞ്ഞാൽ തൊട്ടടുത്ത് അങ്ങനെ കുറച്ച് വീട് ഉണ്ട് എന്നാലും അത്യാവശ്യം ആൾത്താമസമെന്ന് ഒറ്റപ്പെട്ട ഏരിയ അല്ല എന്നാലും നമ്മുടെ ടൗൺ പോലെ അടുത്തടുത്ത് അങ്ങനെ വീട് ഇല്ല കുറച്ച് വിസ്താരം ഉള്ള സ്ഥലം ആണ് വീട് കുറച്ച് റോഡിൻ്റ അടുത്തേക്ക് ആണ് ബാക്കിൽ കുറേ സ്ഥലം ഉണ്ട് അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു തൊടി പോലെ ആക്കി എടുക്കാൻ പറ്റിയ ഒരു സ്ഥലം ഒക്കെ ഉണ്ട്

ആ അതിന്റെ അത് ഓക്കെ അതും അതും പോയി കാണാം ആ രണ്ടും ഒരേ വഴിക്കു തന്നെയാണ് നമുക്ക് പോയി നോക്കാം ആ ശരി ഓക്കെ ആ ശരി വരൂ നമുക്ക് പോവാം